എനിക്ക് എല്ലാ തരത്തിലുള്ള ചെടികളൊക്കെ വളർത്താൻ വേണ്ടീട്ട് ഭയങ്കര ഇഷ്ടംഒള്ള ഒരാളാണ് കാരണം എൻ്റെ പൂന്തോട്ടത്തില് ഇപ്പോൾ പല രീതിയിലുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ചെണ്ടുമല്ലിയാണെങ്കിലും പിന്നെ പഴങ്ങളാണെങ്കിലും അങ്ങനെ പല രീതിയിലുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ എനിക്ക് വളർത്താൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് കൂടുതലായിട്ടും പഴങ്ങളോടാണ് കുറച്ചും കൂടി താല്പര്യം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പഴങ്ങളാണെ നമുക്ക് പറിച്ചു തിന്നാനും നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനും പല രീതിയിലും ചെയ്യാൻ വേണ്ടീട്ട് സാധിക്കുന്ന ഒന്നാണ് ഇപ്പോൾ പൂക്കള്ന്നൊക്കെ പറഞ്ഞ്കഴിഞ്ഞാൽ നമുക്കത് ഭ കാഴ്ചയ്ക്ക് മാത്രമേ ഒളളൂ പച്ചക്കറികളാണെൽ നമുക്ക് കൂടുതലായിട്ടും കറിവെച്ച് തിന്നാനും പലരീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പച്ചക്കറി വെണെങ്കില് ഉപയോഗിക്കാവുന്നെയാണ് ഇപ്പോൾ പച്ചക്കറീന്നൊക്കെ പറഞ്ഞ്കഴിഞ്ഞാൽ പലരീതിയിലുള്ള പച്ചക്കറിയുണ്ട് ഇപ്പോൾ തക്കാളിണ്ട് തക്കാളിക്കൊക്കെ ഈ ഇടയ്ക്ക് നൂറും നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ വന്നിട്ട്ണ്ടായിരുന്നു ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നാലും വലിയ രീതിയിലുള്ള വിലയൊന്നുമില്ല ഇപ്പോൾ ഉള്ളിക്കൊക്കെയാണ് ഭയങ്കരായിട്ട് വിലയും കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരുന്നത് ഇപ്പോൾ എല്ലാ രീതിയിലുള്ള ചെടികളും എനിക്ക് പിന്നെ വളർത്താൻ വേണ്ടീട്ട് ഭയങ്കര ഇഷ്ട്ടള്ളൊരു വ്യക്തിയാണ് ഞാൻ